ഹലോ അതെ അതെ അതെ ഞാനായിരുന്നു

ആ ഞാൻ വിളിച്ചതേ എനിക്ക് ഞാന് മേടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ എനിക്കൊരു രണ്ടുമൂന്ന് ലിറ്റർ പാലും കൂടി നാളെ വേണമായിരുന്നു ആ മ്മ് ആ അതെ എനിക്കൊരു അത്യാവശ്യമുണ്ടായിരുന്നു അപ്പോള് ഈ അങ്ങനെ തീറ്റ മടുപ്പു വന്നുകഴിഞ്ഞാലന്നേരം പാലിന് വ്യത്യാസം വരുമോ കൊഴുപ്പു കുറവോ അങ്ങനെ അല്ലെങ്കില് മറ്റ്

അപ്പോള് ഈ ആ ഈ പാല് എനിക്കു തരാന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനാ അറിയുക എപ്പോഴാണ് അറിയുക എപ്പോള് വിളിക്കും വിളിക്കാമോ ആ ആ അല്ല എനിക്കിച്ചിരെ നേരത്തെ അറിഞ്ഞില്ലെങ്കിലെനിക്കതെടുക്കാന് പറ്റുള്ളു വേറെ വേറെ അഡ്ജസ്റ്റെയ്യാന് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് എപ്പോഴത്തേക്കു വിളിക്കാന് പറ്റും ഉച്ചയാകുമ്പോള് ആ ആയിക്കോട്ടെ ശരി ഏ

അല്ല അല്ല നമുക്കത്യാവശ്യം വന്നതുകൊണ്ടങ്ങു ചോദിച്ചെന്നേ ഉള്ളു ആ എന്നാല് ശരി എന്നാല് ഞാന് വിളിച്ചുകഴിഞ്ഞിട്ട് ഞാനെന്തെങ്കിലും വേറെ സംവിധാനം ചെയ്തോളാം ആ ആ ആ ഇച്ചിരെ അല്ലല്ല അത്യാവശ്യം വന്നതുകൊണ്ടാണ് ആ അപ്പോള് വിളിക്കുമല്ലോ അല്ലേ

ആ അതെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ മ്മ് ആ ആ ഹാ ഹാ ഹാ അല്ല നമ്മളീ മേടിക്കുന്നിടത്തു തന്നെ ചോദിക്കുകയാണെങ്കിലേ വേണ്ട അല്ല ഇപ്പോള് വേറൊരിടത്ത് ചെന്നു ചോദിക്കുമ്പോള് അതൊരു ബുദ്ധിമുട്ട് അവർക്കും ആകും കിട്ടിയില്ലെങ്കില് നമുക്കും ഒരു ബുദ്ധിമുട്ടാകുകേലേ എന്നോർത്താണ് ആ ഓക്കേ എന്നാല് ശരി ആ എന്നാല് വിളിക്കണേ ഓക്കേ